എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നു പറയുന്നത് എന്റമ്മയാണ് ബലഹീനതയും അമ്മയും അച്ഛനും തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യമുണ്ട് നമ്മളെ വളർത്തി വലുതാക്കി അമ്മ നമുക്ക് നോവുമോ ആ ചെറിയൊരു മക്കളേ നോക്കി ഇത്രയും ആക്കുന്ന അമ്മമാർക്ക് അവരുടെ അവരെ അവരാണ് നമ്മുടെ ശക്തി നല്ലൊരു ഫ്രണ്ടാണ് കൂട്ടുകാരിയാണ് ഇപ്പോൾ നമുക്കൊരു വിഷമം വന്നാൽ നമുക്ക് ചിലപ്പോൾ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ പക്ഷെ നമുക്കൊരു ദുഃഖം വന്നാലോ നമുക്കൊരു അസുഖം വന്നാലോ ചേർത്ത് നിർത്തുന്നത് അമ്മയായിരിക്കും അവരുടെ ബലഹീനതയെന്നു പറഞ്ഞാൽ അവരില്ലാത്തതായിരിക്കും നമുക്ക് ബലഹീനത അത് ഇപ്പോൾ പറഞ്ഞാൽ മാത്രം അനുഭവിക്കുന്നവർക്കേ അതു മനസ്സിലാവുകയുള്ളൂ എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് എൻ്റെ അമ്മയാണ് ബലഹീനതയും അമ്മയാണ്